ഓക്കെ ആളുകളിടപെടുന്ന രീതിയിലോ ഡിജിറ്റല് ഗെയിമുകൾ വരുത്തിയ മാറ്റങ്ങളെന്തൊക്കെയാണെന്ന് ചോദിക്കുകണെന്നുണ്ടെങ്കിലിപ്പം ഡിജിറ്റല് ഗെയിമുകളെന്നു പറയുമ്പം എന്റെ അറിവിലുള്ളത് പബ് ജി അതുപോലെ ഫ്രീഫയർ പിന്നെന്താ പറയുക ലുഡോ അങ്ങനെയുള്ളതൊക്കെയാണ് എനിക്കറിയാവുന്നത് അതേ പോലെ ക്യാരംസ് തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് കളിക്കാമല്ലോ അതൊക്കെയാണ് എന്റെ അറിവിലുള്ള ഡിജിറ്റല് ഗെയിമുകളെന്നു പറയുന്നത് ഇതിനു വരുത്തിയ മാറ്റങ്ങളിപ്പം പബ് ജിയായാലും ഫ്രീഫയറായാലും പിള്ളേരെ എന്റെ വീട്ടില് എന്റെ മുറിക്കകത്തിരുന്നാണ് എന്റനിയന് കളിക്കുന്നതെന്നുണ്ടെങ്കില് എന്റെ ആരെങ്കിലും കളിക്കുന്നതുന്നുണ്ടെങ്കിലും ചിലപ്പം ഒരഞ്ചാറ് വീടിനപ്പുറമോ അല്ലെങ്കില് എവിടെയോ കിടക്കുന്ന ഹിന്ദിക്കാർ വരെ മലയാളികളേ അല്ല കേരളത്തിലുള്ളവരെയല്ലാത്ത ആള്ക്കാരും ആയിട്ടൊക്കെ ആയിരിക്കും അവന് സംസാരിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നു അവനിപ്പം അത്യാവശ്യം നന്നായിട്ട് ഹിന്ദിയൊക്കെ ഈ ഇങ്ങനെയെങ്കിലുമൊക്കെ ഹിന്ദിയൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുറേ വാക്കുകളായാലും ആ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നു കേൾക്കാന് പറ്റും അവരവിടെ ഇരുന്നു പറയുന്നതും ഇവർ അതിലൊരു രസം കണ്ടുപിടിച്ചു അതത്ര നല്ലതാണെന്നും അതിനെ ഞാന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഒരിക്കലും ഞാനിതു പോലെയൊരു മുറിക്കകത്തിരുന്നു ഫോണിൽ മാത്രം നോക്കിയുള്ള കളികളും അതില് മാത്രം നോക്കിയുള്ള ഇരുപ്പിനെയോ ഞാന് പ്രോത്സാഹിപ്പിക്കില്ല ഒരുപാടാരോഗ്യ പ്രശ്നങ്ങള് കുട്ടികള്ക്കുണ്ടാകുന്നുണ്ട് എങ്കില്പ്പോലും പോസിറ്റീവെന്നു വേണമെങ്കില് പറയുകയെന്ന സംഭവമാണ് ഇതുപോലെ ഒരു പരിചയമില്ലാത്ത ആള്ക്കാരോടു സംസാരിക്കുന്നത് പോസിറ്റീവല്ല അതു ഞാന് പറയത്തില്ല അതു നല്ല കാര്യമാണ് എന്നാലും ഒത്തിരി ഇടപെടുന്നുണ്ടാള്ക്കാർ അതായത് കുട്ടികൾ മുറിക്കാത്തതാണ് ആരോടും മിണ്ടുന്നില്ലെങ്കില് പോലും ഇങ്ങനെയെങ്കിലും ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും അവരുടെ വാ തുറക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമായിട്ടു തന്നെ ഞാന് പറയുന്നുണ്ട് അതായതിപ്പം അതിന്റെ ഇതേ പോലെ പബ് ജി ഫ്രീഫയറിനകത്തു കൂടെയൊക്കെ അവരെവിടെയോ ഉള്ള ഏതോ ആള്ക്കാരോടവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവർ സംസാരിച്ചതു കൊണ്ടാണ് കളിക്കുന്നത് അങ്ങനെ അവരിടപഴകുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ അവിടെയുള്ള കുട്ടികളാണെങ്കിലും അവർ കൂട്ടം കൂടിയിരുന്നിതേപോലെ പബ് കളിക്കാറുണ്ട് അവരതിലൊരു രസം കണ്ടു പിടിച്ച് ഭയങ്കരൊരു ഭയങ്കരൊരു കൂട്ടുകാരുടെ ഫീലിൽ രസം കണ്ടു പിടിച്ചങ്ങ് കളിക്കുന്നുണ്ടവർ അതിലൊരു നല്ല ഇതായിട്ട് അത് അതങ്ങനെ അവർ തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് പിന്നെ പറയാണമെന്നുണ്ടെങ്കിലിപ്പം ലുഡോ അതുപോലെ ഞാന് ലുഡോയൊക്കെ കളിക്കുന്നതാണ് അപ്പം ലുഡോ കളിക്കുമ്പോഴത്തേക്കിനും ഇതേപോലെ നമ്മളുണ്ടാകും അപ്പുറത്തെ സൈഡിലുണ്ടാകും അതുപോലെ നാല് പേരെ വെച്ച് വേണമെങ്കില് കളിക്കാം അപ്പം അതിലൂടെയൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പം ആ ലൂഡോയുടെ കളിക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കില് ആ ഒരു ബോര്ഡ് ഇല്ലെന്നുണ്ടെങ്കില്പ്പോലും നമുക്ക് ഫോണിൽ മതി എവിടെ വേണമെങ്കിലും ഇരുന്നു കളിക്കാം നമ്മളെല്ലായിടത്തും നമ്മളീ ബോര്ഡും അതുപോലെ അതിൽ വെക്കേണ്ട ഇതൊന്നും കൊണ്ടു പോകേണ്ട കായൊന്നും അങ്ങനെയൊന്നും കൊണ്ടു പോകേണ്ട അല്ലാണ്ട് നമുക്ക് കളിക്കാന് പറ്റും അതു തന്നെ ഇതേപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്രകള്ക്കിടയിലോ വേണമെങ്കില് യാത്ര അല്ലെങ്കില് എവിടെയാന്നെ നമ്മൾ വെറുതേയിരുന്നു മടുക്കുമ്പോഴത്തേക്കിനും പലരും പല ഫോണിലിരുന്ന് പല ഇത് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അല്ലെങ്കില് ചുമ്മാതിരുന്ന് എന്തെങ്കിലും വീഡിയോകൾ കണ്ടു കൊണ്ടിരിക്കുകയോ അങ്ങനെയെക്കെയോ ചെയ്യുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇതുപോലെ ലുഡോയൊക്കെ ആകുമ്പോഴത്തേക്കിനും അല്ലെങ്കിലതു പോലെയുള്ള ഗെയിമൊക്കെ ആകുമ്പോൾ ഇതേപോലെ മൂന്നോ നാലോ പേര്ക്കോ നാല് പേര്ക്കു വരെയൊക്കെ കളിക്കാമെന്നു തോന്നുന്നു അപ്പം അവർക്ക് നാല് പേര്ക്കും ചുറ്റിനും ഇരുന്നിട്ടു കളിക്കാം കളിക്കുമ്പോഴത്തേനാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെയൊരു സ്വഭാവം വെച്ചിട്ട് മിണ്ടാതിരുന്ന് നമ്മൾ കളിക്കത്തില്ല അല്ലെങ്കില് മിണ്ടാതിരുന്നങ്ങനെ ചെയ്യേണ്ടൊരു സീരിയസ്സായിട്ടുള്ള കാര്യമല്ല കളിക്കുകയെന്നു പറയുന്നത് അതുകൊണ്ടു തന്നെ ആ ഇരിക്കുന്ന അവർ നാല് പേരാരായാലും അവർ നാല് പേരും കൂടെയിരുന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാരിക്കും ഇരിക്കുക അവരിരുന്നിപ്പോൾ ഓരോ ജയിക്കുമ്പോഴും അതിന്റെതായിട്ടുള്ള ഒച്ചയും ബഹളവും അലച്ചിലും ഒക്കെയായിട്ട് അത് ഭയങ്കര രസമായിട്ടായിരിക്കും അങ്ങനെ വിധത്തിലുള്ള ഒരു എന്താ പറയേണ്ടേ ഇതു നടക്കുന്നുണ്ട് ഇടപെടലുകൾ നടക്കുന്നുണ്ട് അങ്ങനെ വിധത്തിലൊള്ളൊരു അതുകൊണ്ടു തന്നെ അത്തരം ഗെയിമുകൾക്ക് നമ്മൾ പലപ്പോഴും ഇത്തരം ഗെയിമുകളുടെ ഒരു മോശം വശം മാത്രമാണ് കാണുന്നത് മോശം അല്ലായെന്നു ഞാന് പറയത്തില്ല ഇതേറ്റവും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഞാനിതിനുള്ള എന്താ പറയുക ഈ ഇത് ഇതേപോലെയുള്ള ഓണ്ലൈന് ഗെയിമുകളെ ഒന്നും ഞാന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അവർ സംസാരിക്കുന്നതല്ലേ എല്ലാ കുട്ടികളുടെയിതേ പോലെ ഓണ്ലൈന് ഗെയിം കളിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നതാണ് അവർ മുറിക്കകത്തടച്ചിട്ടിട്ട് ആരോടും മിണ്ടുന്നില്ല അവർ മിണ്ടുന്നില്ല വീട്ടിലുള്ളവരോടും മിണ്ടുന്നില്ല അതൊരു മോശമാണ് നെഗറ്റീവ് സാധനമാണ് പക്ഷേ എങ്കിൽപ്പോലും ആരോടെങ്കിലും ഇവിടെയിരിക്കുന്ന ആരോടെങ്കിലും ഒക്കെ ഒരു മിണ്ടുമെന്നുള്ള ഉണ്ട് എന്തെങ്കിലും വായ തുറക്കുന്നുണ്ട് ചിലപ്പം ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ കളിച്ചു രസം പിടിച്ച് മാത്രം വാ തുറക്കുന്ന കുട്ടികൾ വരെയുണ്ട് നല്ലതാണെന്നു പറയില്ല എങ്കിലും ഉണ്ട് പക്ഷേ ഈ ലുഡോയെന്നൊക്കെ പറയുമ്പം അങ്ങനെ ഹരം പിടിച്ചു പോകാന് മാത്രം ഉള്ളതൊന്നുമില്ല അത് എല്ലാവര്ക്കും കൂട്ടം കൂടിയിരുന്ന് കളിക്കാന് പറ്റുന്നൊരു സാധനമാണ് ലുഡോ അതുപോലെതന്നെ ക്യാരംസ് ക്യാരംസും ഇതുപോലെയാണ് ഓണ്ലൈനായിട്ടു നമുക്ക് ക്യാരംസ് കിട്ടുന്നുണ്ട് ക്യാരംസിന്റെ ആ ഒരു ആ ഗെയിം കളിക്കാന് പറ്റുന്നുണ്ട് അപ്പോൾ അതും ഇതേപോലെ അപ്പുറമോ ഇപ്പുറമോ ഇരുന്നിട്ട് രസം അവര്ക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കളിക്കാന് പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ആളുകളിടപഴകുന്ന രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഡിജിറ്റല് ഗെയിമുകളിൽ വരുത്തിയിട്ടുണ്ട് ആ മാറ്റങ്ങൾ നല്ലതും കൂടെയാണെന്നു ഞാന് പറയും